ഇപ്പോൾ ഞാൻ സൈക്കിള് പോയ യാത്രാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു ഓഫ് റോഡ് ആയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള പേടിയും കര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനെന്ത് ചെയ്ത് അങ്ങ് പോയി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എന്താ പറയാ അതിലേക്കൊക്കെ പോകും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിങ്ങിൽ പലതരം പാതകളിലൂടെ പോകുന്നുണ്ടെങ്കിലും ഓഫ് റോഡ് അതായത് വലിയ കല്ലുകളുടെ മേളിൽ കയറുമ്പൊക്കെ നല്ല പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്നു കാരണം വീണു കഴിഞ്ഞാൽ നമ്മുടെ കയ്യും കാലൊക്കെ ഒടിയും പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റോന്നൊക്കൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു പേടിയായിരുന്നു കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും പറ്റികഴിഞ്ഞാൽ പിന്നവിടന്ന് ആശുപത്രിയിൽ പിന്നെ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങളൊക്കെ വരുമായിരുന്നു അപ്പോൾ അതൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല അങ്ങ് പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കയറാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി നമ്മൾ മെയിൻ റോട്ടിൽ പോകണെങ്കിത്തന്നെ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് പോവുക അപ്പോൾ അതും ചെറിയൊരു വെല്ലുവിളിയായിട്ടൊക്കെയാണ് തോന്നിയത് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എതിരെ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടണംന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ എനിക്കൊരു വെല്ലുവിളിയായിട്ടാണ് തോന്നിയത്